ആ ഞാനൊരു ഓർഡറ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ ന്യൂ ഫോമാണോ റെസ്റ്റോറൻറ്റ് ആ ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് കുറച്ച് ബൾക്ക് ആയിട്ട് ഉള്ള ഓർഡർ വേണേൽ കാരണം ഒരു ബാച്ലർ പാർട്ടി വീട്ടിൽ പിന്നെ ചെയ്യുന്നത് ആണേ നൈറ്റ് ആണ് വേണ്ടത് ഫുഡ് ആ നമുക്ക് ഒരു ബൊഫേ പോലെ അറേഞ്ച് ചെയ്യാം എന്ന് വെച്ചിട്ടാ ചപ്പാത്തി പൊറോട്ട പിന്നെ ബീഫ് കറി ആട് കറി ബോട്ടി കറി പിന്നെന്താ പന്നി അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും അതായത് ഫിഷ് അങ്ങനെ ഉള്ള പിന്നെ നോൺ വെജും വെജും എല്ലാം കൂടെ വേണം പിന്നെ അതുപോലെ ചപ്പാത്തിക്ക് പറ്റിയ കുറുമ കറി അങ്ങനുള്ള കറികളൊക്കെ വേണം പിന്നെ അതുപോലെ തന്നെ മന്തി വേണം നമുക്ക് അൽഫാം മന്തി വേണം പെരി പെരി വേണം അങ്ങനെ ഉള്ള മന്തികളും കാര്യങ്ങളെല്ലാം വേണം നമുക്ക് ഒരു മുന്നൂറ് ആൾടെ പരുപാടി ആണേ അപ്പം എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങള് ചെയ്ത് തരുവോ ആ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമില് എത്തണം സാധനങ്ങളൊക്കെ ആ ഓക്കെ ഓക്കെ ഞാന് ലൊക്കേഷൻ ഒക്കെ ഞാന് വാട്ട്സപ്പ് ചെയ്യാട്ടോ ഓക്കെ